ഹലോ ഹലോ ആ എക്സൽ ഫർണീച്ചർ ഷോപ്പാണ് ആ എവിടെ നിന്നാണ് വിളിക്കുന്നത് ആ ആ ഇവിടെ പെരിന്തൽമണ്ണ ഇല്ലേ മലപ്പുറം പെരിന്തൽമണ്ണയിലാണ് വരുന്നത്

ആ ഇപ്പോൾ ചെറിയൊരു ഓഫർ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ഒരു വൺ മന്തിന് നമ്മൾ പിന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജിലാണ് ഓഫർ കൊടുക്കുന്നത് അതെ അതെ ആ ആ കട്ടിൽ അത് ഏത് വുഡിലാണ് വേണ്ടത് തേക്കിൽ ഉണ്ട് അതേപോലെ മഹാഗണി പിന്നെ പ്ലാവിൻ്റെ ഇതിൽ ഒക്കെ ഉണ്ട് അപ്പം ഏതിലാണ് വേണ്ടത് തേക്കിന് ഡബിൾ കോട്ടിനാണെന്നുണ്ടെങ്കിൽ പിന്നെ ഏഴായിരം വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്

ചിതൽ പോലെ ഒന്നും കട്ടലിനും വേറെ മരങ്ങൾക്കൊന്നും വരില്ല ഇത് സാധനങ്ങൾ കൊണ്ട് എടുക്കുകയാണെന്ന് ഉണ്ടെങ്കിൽ ക്വാളിറ്റിക്ക് ഗ്യാരൻണ്ടി തരും പിന്നെ അതേപോലെ സോഫ എന്തേലും നോക്കുന്നുണ്ടോ സെറ്റി പോലെ സോഫ ഇപ്പോഴത്തെ മോഡലുണ്ടല്ലോ പിന്നെ അതാകുമ്പോൾ ഒരു ട്വൻറ്ററി ഫൈവിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ സാധാ നമ്മൾ ആദ്യത്തെ മോഡലാണെങ്കിൽ ടെൻ തൗസന്റിൻ്റെ താഴെ ആയിട്ടും വരുന്നുണ്ട് മുകളിലായിട്ടും വരുന്നുണ്ട് ആ പിന്നെ അതിൻ്റെ ഷീറ്റൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് പോലെ പിന്നെ ഏത് ഡിസൈനാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളുടെ ഷോപ്പിൽ നിന്ന്

ആ ആ ആ നിങ്ങൾ വന്നാൽ മതി ആ ആ